ചക്കയും ചക്ക ബിസിനസ്സ് മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ചക്ക ചക്കയെ കൊണ്ട് ചക്കകൊണ്ട് പല ഇതുണ്ടാക്കാം ചക്ക വറുക്കാം ചക്ക പായസം ഉണ്ടാക്കാം ചക്കയെക്കുറിച്ച് പറയുകാണെങ്കിൽ ചക്ക ചെവിനി പോലും വെച്ച് നമുക്ക് മിച്ചർ ഉണ്ടാക്കാം അങ്ങനെ ചക്ക എന്നുണ്ടെങ്കില് ചക്ക നമ്മളുടെ ജ ഇപ്പം ഈ സമയത്താണ് ഉണ്ടാകുക കുംഭം കഴിഞ്ഞ പാടിന് ചക്ക ഇഷ്ടംമാതിരി നമ്മുടെ ഓരോ തോട്ടങ്ങളില് ഉണ്ടാവും ഒരു സ്ഥലത്ത് പോയി പറിച്ച് കൊണ്ടുവന്നാൽത്തന്നെ നമുക്കിത് കൊണ്ട് ബിസിനസ്സ് നടത്താവുന്നതാണ് കാരണം മൈസൂരും ബാംഗ്ളൂരും ചക്കചുളയ്ക്ക് വേ പത്തും ഇരുപതും രൂപ കൊടുക്കണം നമ്മുടെ വയനാട്ടിൽ നമുക്ക് ചക്കയെക്കുറിച്ച് ഒരു വില ഇല്ല കാരണം ഇത് ചീഞ്ഞ് പോകാറാണ് സാധാരണ പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ചക്കയെ അപേക്ഷിച്ച് ഒരു ചക്കയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു മാ പിന്നെ മൈസൂര് ബാംഗ്ലൂര് അവരൊക്കെ ചക്കക്ക് വേണ്ടി കൊതിക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല ഇത് വലിച്ചെറിയും തോട്ടങ്ങളിൽ പക്ഷെ അവരൊക്കെ ഒരു കുരു കിട്ടാൻ വേണ്ടിയിട്ട് കുരുവിന് പത്ത് പൈസ ഇരുപത് രൂപ പൈസയെ കൊടുത്ത് മേടിക്കണം നമ്മുടെ നാട്ടില് ചക്ക ഇങ്ങനെ ഒരുപാട് ഉണ്ടായാലും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ചക്ക ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി ചക്കയെ ഒരാളും കളയാതെത്തന്നെ ചക്കക്കുരു എടുത്ത് വെച്ച് വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് അത് വറുത്ത് പൊടിച്ച് പല പലഹാരങ്ങളും ഉണ്ടാക്കി നമ്മൾ വിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നമ്മളുടെ പിന്നെ വയനാട്ടില് ഉള്ളത് കാരണം